ഇരുപത്തിനാല് ഒൻപത് രണ്ടായിരത്തി രണ്ട് ഇരുപത് ഏഴ് രണ്ടായിരം ഇരുപത്തിയഞ്ച് പൂജ്യം ആറ് ആയിരത്തിത്തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് പതിനെട്ട് നാലും രണ്ടായിരത്തി ഒന്ന് പത്ത് പത്ത് രണ്ടായിരത്തി രണ്ട്